സാങ്കേതികവിദ്യ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് ഉപദ്രവകാരിയായ സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട് കാരണമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതിതുപോലെതന്നെ ഫോണുതന്നെയാണ് ഫോണിലേയ്ക്ക് അഡിക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽപ്പോലും ഫോൺ കൊടുത്തുകൊണ്ട് ഫോണിൽ ഓരോ വീഡിയോസും കാർട്ടൂണോക്കെ കാണിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഗതികേടാണ് അപ്പോൾപ്പിന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല പിന്നെ അതുപോലെതന്നെ അവരുടെ ചിന്താഗതി ഓരോ കാര്യങ്ങളിലേക്കുള്ള ചിന്താഗതിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിയില്ലായ്മയും ഉണ്ടാവും അങ്ങനെയൊക്കെ സാങ്കേതികവിദ്യ കാരണം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് അപ്പോൾ അവരിൽ നിന്നു ഈ അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി അവരെ ഫോൺ ഫോണിൻ്റെ ഉപയോഗം കുറയ്പ്പിക്കുകയും അതുപോലെത്തന്നെ പ്രകൃതിഭംഗി ആസ്വദിച്ച് അവരെ ഭക്ഷണം കഴിപ്പിക്കുകയും അതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കുകയൊക്കെ ചെയ്യലാണ് ഏറ്റവും നല്ലത്